താങ്കൾക്കിഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഭക്ഷണ വിഭവം ഏതാണ് അത് എന്ത് കൊണ്ടാണ് ഇഷ്ടപെടാനുള്ള കാരണവും അത് ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാന്നറിയോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വിഭവമെന്ന് പറയുന്നത് ബിരിയാണിയാണ് അത് എനിക്കേറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് അതിൻ്റെ രുചി തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡായിട്ടുള്ള രുചിയുണ്ട് ചെറിയൊരു എന്നാൽ ചെറുതായിട്ട് റൈസിൻ്റെ ആ ഒരു ഫ്ലേവറ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സവോള വരണ്ടുള്ള രുചിയ് എനിക്ക് ഏത് രീതിയിലത് കിട്ടിയാലുമെനിക്ക് കഴിക്കാനിഷ്ട്ടമാണ് ദമ്മിട്ട ബിരിയാണിയും ദമ്മല്ലാത്ത ബിരിയാണിയുമൊക്കെ എനിക്ക് കഴിക്കാനിഷ്ടമാണ് ഫ്രെയ്ഡ് ചിക്കൻ വെച്ചിട്ടുള്ള ബിരിയാണി എനിക്കേത് രീതിയിലാണെങ്കിലും ബിരിയാണി എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കാരണമത് അതിനൊരു യൂണിക്ക്നസ് ഉണ്ട് ഒരു ടേസ്റ്റ് ഉണ്ട് പിന്നെ അത് ഉണ്ടാക്കുന്ന വിധം ചിലതൊക്കെ കുറെ എനിക്കറിയാം എനിക്ക് എല്ലാ രീതിയിലും ഉണ്ടാക്കുന്നത് അറിയില്ല നോർമൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് നമ്മള് പാത്രം അയ്യോ സോറി പാത്രമെടുത്ത് പാത്രമെടുത്തിട്ട് നമ്മള് അതിന് ഉള്ള അരി ആദ്യം വേവിക്കുന്നു അതില് കുറച്ച് കറുവപ്പട്ട അതുപോലെ നാ ഉണക്ക നാരങ്ങ ഒക്കെ ഇടുന്നവരുണ്ട് ഉപ്പൊക്കെ ഇട്ട് നമ്മളാ റൈസ് വേവിക്കുക അതിന് ശേഷം ചിക്കൻ നമ്മള് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണം അത് നമ്മള് ഫ്രൈ ചെയ്യുന്നവരുണ്ട് ഫ്രൈ ചെയ്തിട്ട് നോർമ്മലായിട്ട് ആഡ് ചെയ്യുന്നവരുണ്ട് പിന്നെ നമ്മള് ബിരിയാനിയിലിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമ്മള് വെജിറ്റബിൾസൊക്കെ ഇടും എനിക്കതും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെജിറ്റബിൾ ബിരിയാണീനേക്കാലും എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് കൂടുതലിഷ്ടം കാരണമതിന് ചിക്കൻ്റെ ഫ്ലേവറ് വരുന്ന സമയത്ത് ആ ഒരു മസാല ഫ്ലേവറ് വരുമ്പം തന്നെ അതിന് രുചി കൂടാറുണ്ട് അതുകൊണ്ടാണെനിക്കേറ്റവും ഇഷ്ടം